ഹലോ ദീപു അല്ലേ അതെ ഞാാൻ അന്ന് വിളിച്ചിരുന്നു ഒരു വസ്തുവിനെ സംബന്ധിച്ചു ഒരു വിവരം കിട്ടാൻ വേണ്ടി ആ അതെ ഇപ്പം ഇന്ന് വിളി ആ ഇന്ന് വിളിക്കാനാണ് പറഞ്ഞിരുന്നത് ഓക്കെ എനിക്ക് ഒരു ത്രീ ബി എച്ച് കെ ഉള്ള ഒരു വസ്തു വേണം അത് ഏകദേശം ഒരു പതിനാറ് സെൻ്റിന് അകത്ത് നിൽക്കണം

ഓക്കെ നമുക്ക് അത്യാവശ്യം ഒന്ന് വണ്ടി സർവീസ് വേണം അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വസ്തുവിൽ നമുക്ക് മറ്റേ വെള്ളത്തിൻ്റെ മറ്റൊരു ഇഷ്യൂസൊന്നും ഉണ്ടാവാൻ പാടില്ല അതുപോലെ നമുക്ക് വെള്ളം കുടിവെള്ളത്തിനുള്ള ക്ഷാമം ഇല്ലാത്ത ഏരിയ വേണം ഒരുപാട് നമുക്ക് മല ഏരിയയിൽ അങ്ങനെയൊന്നും വേണ്ട

ഓക്കെ നമുക്ക് അത്യാവശ്യത്തിന് വണ്ടി കയറി ചെല്ലണം ഫോർ വീൽ ആണെങ്കിൽ ഓക്ക പ്ലോട്ട് ആയിട്ടല്ല നമുക്ക് വസ്തുവായിട്ട് കിട്ടത്തില്ലേ അതായത് നമുക്ക് ഒറ്റയ്ക്കുള്ള ഏരിയ ആയിട്ട്

ഓക്കെ ഓക്കെ അപ്പം വസ്തു എങ്ങനെയാണ് ഇതു വരുന്നത് സെൻ്റിന് എത്ര വച്ചാണ് വരുന്നത് നമുക്ക് അത് നമ്മൾക്ക് ഒന്ന് കുറക്കാൻ പറ്റില്ലേ അത്

ഓക്കെ ഓക്കെ നമുക്ക് മറ്റ് ശല്യങ്ങളോ അല്ലെങ്കിൽ പരിസരം ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല സഹകരണം ഉള്ളത് അല്ലേ അതെ അതെ ഓക്ക അങ്ങനെയാണെങ്കിൽ ആ ഓകെ ശരി അങ്ങനെ ആണെങ്കിൽ നമുക്ക് അത് തന്നെ നോക്കാം എനിക്ക് ഒന്ന് വന്നു കണ്ടു ആദ്യം വന്നു സംസാരിക്കണം ആദ്യമേ അതായത് നമുക്ക് സ്ഥലമൊന്ന് കാണാതെ നമുക്ക് വാക്കാൽ പറയാൻ പറ്റില്ലല്ലോ

ഓക്കെ തീർച്ചയായും തീർച്ചയായും അപ്പം അങ്ങനെ ഞാൻ വൈകിട്ട് വിളിച്ചിട്ട് നാളെ എത്ര മണിക്കാണ് വരുന്നത് കൃത്യസമയം പറയാം